ഹലോ ഹലോ ആ ആ പറഞ്ഞൊ ആ അധാർ കാർഡ് എടുക്കാനായിട്ട് ഇത് ആദ്യവായിട്ട് എടുക്കുവാണോ അധാർ കാർഡ് ഇതിന് മുമ്പ് എടുത്തിട്ടൊന്നും ഇല്ലേ നാട്ടിലില്ല അപ്പോൾ നാട്ടിൽ ഇല്ലാത്തപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഓൺലൈൻ വഴി എടുക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഉള്ളവർക്ക് രണ്ടാമത് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാവും ആണോ ആ അപ്പോൾ അതിനെ വേണ്ടത് വെച്ചാല് ഒന്ന് നിസ്സാര സംഗതികളെ ഉള്ളൂ നമ്മുടെ പാസ്സ്പോർട്ടിൻ്റെ കോപ്പിയൊ അല്ലെങ്കില് പത്താം ക്ലാസ് പഠിച്ചതിൻ്റെ കോപ്പി അധാർ കാർഡ് പിന്നെ ഇത് റേഷൻ കാർഡിൻ്റെ കോപ്പികള് ഫോട്ടോ കോപ്പി പിന്നെ നമ്മുടെ ഫോട്ടോ ഇത്രയും മതി മ്മ് ഇത്രയും കൂടെ ഇത്രയും കൊണ്ടുവന്ന് നമ്മുടെ ഓഫീസിൽ വന്നാൽ മതി അത് ഇവിടെ കുന്നുംന്താനത്ത് ആ ഫോട്ടോ അത് മതി ആ വന്നാൽ മതി അങ്ങനെ വന്ന് കഴിഞ്ഞാൽ അതൊരു ഒരു മണിക്കൂറിൻറ്റെ കാര്യമേ ഉളളു ഞാനത് എല്ലാം ഓൺലൈനില് കൂടെ എല്ലാ ചെയ്ത് തരാം അതിന് താമസം ഒന്നും ഉള്ള കാര്യല്ല പെട്ടെന്ന് ചെയ്ത് തരാം ആ നേരിട്ട് വരണം നേരിട്ട് വന്നാലെ ആ പേപ്പറിനകത്ത് അതിനകത്ത് ഓൺലൈനിൽ കൂടെ ഒപ്പിടാനുണ്ട് ആ അതുകൊണ്ട് നേരിട്ട് വരണം നേരിട്ട് വന്നാലെ കാര്യം നടക്കത്തുള്ളൂ ആ ഫോട്ടോ എടുക്കണം തീർച്ചയായിട്ടും ഒരു ഫോട്ടോ വേണം ഒരു ഫോട്ടോയൊ രണ്ട് ഫോട്ടോയൊ എടുത്തൊ ഇനി വല്ല ആവശ്യം വന്നെങ്കിലേ എല്ലാവരും വന്ന് ഒട്ടിച്ചു വച്ചിട്ട് കീറി പോകുകയോ വല്ലതും ചെയ്തെങ്കിലേ രണ്ടെണ്ണം എടുത്തൊ ആ പൈസ അതിന്റെ വെച്ചാൽ നാൽപത് രൂപയുണ്ട് ചാർജ്ജ് നാൽപ്പത് രൂപ ഏ കേട്ടില്ല കേട്ടില്ല ഓ ര രാവിലെ ഒരു എട്ടര ആകുമ്പോൾ പോര് ഞാന് ഏഴര ആകുമ്പോൾ ഇവിടെ തുറക്കുന്നുണ്ട് ഒര് എട്ടര ആകുമ്പം തന്നെ അങ്ങ് പോര് രാവിലെ എന്തേലും തലേദിവസത്തെ പണിയൊക്കെ ബാക്കി കാണും അതൊക്കെ ചെയ്യണം എല്ലാം കഴിയുമ്പം തന്നെ ഒന്ന് റെഡി ആക്കാം എട്ടര ആകുമ്പോൾ വന്നാൽ മതി മ്മ് പിന്നെ ആ ലൈനിൽ തന്നെ പിന്നെ ചോദിക്കാൻ ഉള്ളതെ നിങ്ങളുടെ വീട് എവിടെയാണ് ദൂരവില്ല അത് സമയം കഴിയുന്നതിന് മുമ്പ് അങ്ങ് വരണെ എട്ടര ആകുമ്പോഴെ കാരണം ഞാന് വേറെ ഒരാള് എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഞാന് ഒമ്പത് മാണിയാണ് സമയം കൊടുത്തിരിക്കുന്നത് ആ അപ്പോൾ ആ സമയത്തിനു വേണ്ടി കാത്തിരിക്കണം അത്രയും നേരം ഉണ്ട് നേരത്തെ ഇങ്ങ് എത്തിയേക്കണം മാറരുത് പിന്നെ കാശും അന്നേരം വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി കേട്ടോ പിന്നെ ആ